ജോലി സ്ഥലങ്ങളില് നമ്മള് ജോലി സ്ഥലത്ത് ഒരുപാട് നമുക്ക് സംഘര്ഷങ്ങളും മറ്റ് കാര്യങ്ങളും നമുക്ക് അനുഭവപ്പെടാറുണ്ട് ആ സാഹചര്യങ്ങള് നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യും എന്നു ചോദിച്ചാൽ നമുക്ക് ജോലി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരുപാട് നമ്മള് സമ്മര്ദ്ദത്തില് ആയിരിക്കാം ദേഷ്യത്തില് ആയിരിക്കും അല്ലെങ്കില് നമുക്ക് മേലുദ്യോഗസ്ഥനില് നിന്ന് നമുക്ക് വഴക്കും മറ്റും കേള്ക്കേണ്ടി വന്നിരിക്കും ആ ഒരു സമയത്തൊക്കെ നമ്മള് കൂടുതലും ക്ഷമയോടെ ഇരിക്കുക അല്ലെങ്കില് മറുത്ത് ഒരു വാക്ക് പോലും പറയാണ്ടിരിക്കുക കാരണം നമുക്ക് നമ്മള് ദേഷ്യം വരുന്ന സമയത്ത് നമ്മള് നമ്മളല്ലാതായിത്തീരും എന്ന് പറയുന്നത് പോലെ ആ സമയത്ത് നമ്മള് പറയുന്ന കാര്യങ്ങള്ക്കൊരു എന്താ പറയുക ഒരു കണക്കും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ ആ സാഹചര്യങ്ങളിലും മിക്കവാറും മൗനമായിട്ടിരിക്കുക തന്നെ വേണം പിന്നെ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് വീട്ടില് മക്കളേയും മറ്റും കാണുമ്പോൾ നമുക്ക് നമ്മടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം അല്ലെങ്കില് ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ഒന്നു വേറെ തന്നെയാണ് പിന്നെ ജോലിസ്ഥലത്തെ കാര്യങ്ങള് ജോലിസ്ഥലത്തോടുകൂടി ഉപേക്ഷിക്കുക വീട്ടിൽ വന്നാൽ അതുമായിട്ട് രണ്ടും കൂടി കൂട്ടി കലര്ത്താതിരി കൂട്ടിക്കലര്ത്താതെ ആയി നോക്കുക